ഹലോ ആ വീട്ടിലുണ്ട് പറഞ്ഞോ ആ ഉണ്ട് ഉണ്ട് ആ ആ അടിപൊളി സാധനമല്ലേ ഞാനിപ്പം കുറച്ച് നാളായില്ലേ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൈസ കിട്ടുന്നത് പൈസ അടച്ചാലേ നമുക്കതിനകത്തോട്ട് കയറാൻ പറ്റത്തൊള്ളൂ അപ്പം നമ്മൾ ആ ബേസിക്ക് നൂറ്റിതൊണ്ണൂറ്റൊമ്പതിന്റെയാണ് അപ്പം നമ്മൾ ആ പൈസ അടച്ചിട്ട് അപ്പം നമുക്ക് ഓൾറെഡി ഒരു പാസ്വേർഡ് ആ നമ്മുടെ ഐ ഡി വെച്ചും കയറിയാൽ മതി അങ്ങനെ ആ ആ അപ്പം അങ്ങനെ കയറി നമുക്ക് സാദാ പോലെ ബാക്കിയെല്ലാം ഉപയോഗിക്കുന്നത് പോലെ ആമസോൺ പ്രൈമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ സാദാ പോലെ ചെയ്താൽ മതി അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നെറ്റ്ഫ്ലിക്സ്സാകുമ്പോൾ കുറച്ചുംകൂടെ തോനെ നല്ല വെറൈറ്റി കിട്ടുമല്ലോ ആമസോണിലാകുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും ആക്സസ് ആവത്തില്ല ആഡൊക്കെ കൂടുതലാണ് അതിൽ ഇനി നമ്മൾ ആ എന്നാൽ ആ ഇനി നമ്മൾ അല്ലാതെ എടുക്കുകയാണെങ്കിൽ ആഡൊന്നും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രീമിയം എടുക്കണം പ്രീമിയം എടുക്കുമ്പോൾ നമുക്ക് ഈ ഇതിൽ അക്കൌണ്ട് എടുക്കുന്നതിനേക്കാളും പൈസ ആകും അപ്പം പിന്നെ മറ്റേതാണ് നല്ലത് പിന്നെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഇപ്പം നമ്മൾ ടി വിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അതാണ് ഇപ്പം പഴയ പോലെ നല്ല പരിപാടിയൊന്നും ടി വിക്കകത്തില്ല നെറ്റ്ഫ്ളിക്സിൽ എല്ലാം കിട്ടും എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കോമിക്സ് മുതൽ എല്ലാം കിട്ടും ഭയങ്കര വെറൈറ്റിയിൽ കിട്ടും എനിക്ക് ഉപയോഗിച്ച് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒത്തിരി നല്ല പ്ലാറ്റ്ഫോർമാണ് ഓ ടി ടി വെച്ച് നല്ല പ്ലാറ്റ്ഫോർമാണ് അതിപ്പം നമ്മൾ കാണുന്നത് പോലെ ഇപ്പം ഒരു ദിവസം നമ്മളൊരു പത്തിരുപത് എപ്പിസോഡ് കാണുകയാണെന്ന് വെച്ചോ അങ്ങനെ തീരത്തില്ലേ ഇനി അല്ല വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല മോഡറേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല വലിയ വലിയ നെറ്റൊന്നും ആകത്തില്ല വളരെ നല്ല തീരുമാനമാണ് നമ്മളിപ്പം ആ ഇപ്പം ആരാണ് അങ്ങനെ ടി വി കാണുന്നില്ലല്ലോ ടി വി കാണുന്നവർ അതിനകത്ത് വെച്ചാൽ തന്നെ നല്ല പരിപാടിയൊന്നുമില്ല പിന്നെന്തിനാണ് കാണുന്നത് ഇത് അത്യാവശ്യം നെറ്റൊക്കെയേ എടുക്കത്തുള്ളൂ ആ എടുക്കാനാണോ ആ നല്ലതാണ് നല്ല സാധനമാണ് പിന്നെ ഉപയോഗിക്കുന്നത് പോലെ എടുത്തോ എടുത്തോ എടുത്തോ എന്നാൽ